സെക്കന്റ് പ്രോഡക്റ്റ് എന്ന് എന്നതൊരു പവർ ബാങ്കാണ് അപ്പോൾ ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും പെട്ടിട്ട് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫോണിൽ ചാർജ്ജൊന്നുമില്ല അതല്ലെങ്കിൽ കറണ്ടൊന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്തിട്ടാൽ അപ്പം ഈ പവർ ബാങ്കുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല യൂസ്ഫുള്ളാണല്ലോ അപ്പം അതിൻ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മളിപ്പം എവിടെ പെട്ടു പോയാലും ഈ പവർ ബാങ്കിൽ ഫുൾ ചാർജ്ജുണ്ടെങ്കിൽ നമുക്ക് കറണ്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ ചാർജ് ചെയ്യാനുള്ള വയറുണ്ടോ അതൊന്നും നോക്കി നടക്കേണ്ട ആവശ്യമില്ല ചാർജ് ചാർജർ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല അത് അതിൻ്റെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് നെഗറ്റീവെന്ന് പറയുന്നത് ഇപ്പം നമുക്കത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഫോൺ പോലെത്തന്നെ അതും എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടു നടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ വെയിറ്റും കൂടുതലാണ് അപ്പം നമുക്ക് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മുടെ പോക്കറ്റിലതും ഫോൺ ഉപയോഗിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചെറിയ പവർ ബാങ്കൊക്കെയാണെ യൂസ്ഫുള്ളാണ് വലുതാകുമ്പം അതിൻ്റെ വെയിറ്റും കൂടുതലാണ് അതുപോലെ തന്നെ ക്യാരി ചെയ്യാനും ബുദ്ധിമുട്ടാണ് അത് അതിൻ്റെ നെഗറ്റീവ് എക്സ്പീരിയൻസായിട്ട് കാണുന്നു